മൃഗങ്ങൾക്ക് കുളമ്പു രോഗം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അതിന് നല്ല രീതിയിൽ ചാണകത്തിൽ ചവിട്ടി നിൽക്കുന്നത് കൊണ്ടായിരിക്കാണ് അങ്ങനെ കുളമ്പു രോഗം വരുന്നത് അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി നല്ലപോലെ ചൂടു വെള്ളം ഒക്കെ ഒഴിച്ചു കഴുകി മാസത്തിൽ ഒന്നെങ്കിലും നല്ല രീതിയിൽ ഡോക്ടറെ കൊണ്ട് വിളിച്ചു കൊണ്ടു വന്നു നമ്മൾ കാണിക്കണം കുളമ്പു രോഗത്തിന് പ്രത്യേക ചികിത്സ ചെയ്യണം സാധാരണ രോഗം എന്നു പറഞ്ഞാൽ ചിലപ്പോൾ ചെറിയ പനിയുണ്ടാകും പനിക്ക് നമ്മളെ നാട്ടു മരുന്നൊക്കെ മേടിച്ചു കൊടുക്കും വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളവും ഇതെല്ലാം കൂടെ ചേർത്തു നല്ല രീതിയിൽ ഇടിച്ചു പിഴിഞ്ഞു ഇച്ചരി കായം ഒക്കെ കൂടിയിട്ട് നല്ല രീതിയിൽ ഒരു കുപ്പി നിറച്ചു അതിന് കൊടുക്കും അങ്ങനെ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് അതിന് ആ പനിിയ അങ്ങ് വിടും പനി പിന്നെ മറ്റുള്ള ചികിൽസ എന്നു വച്ചാൽ അവ എങ്ങനെ തടയാമെന്ന് വച്ചാൽ നമ്മൾ ഈ ഈ കുളമ്പു രോഗത്തിന് നമ്മൾ ചാണകത്തിൽ ചവിട്ടാതെ പശുവിനെ കഴിയുന്നതും ചാണകം പശു ഇട്ട് കഴിയുമ്പോൾ അപ്പം തന്നെ നമ്മൾ നീക്കി നമ്മൾ അതിൻ്റെ അവിടെ വൃത്തിയാക്കുക അങ്ങനെ വൃത്തിയാക്കിയ ശേഷം നമ്മൾ ഒരു ഓസെടുത്തടിച്ചു വെള്ളം ഒഴിച്ചു അവിടെ എല്ലാം നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും അത് നല്ല ഇതായി കിടക്കും അപ്പം കുളമ്പ് രോഗം വരാതിരിക്കും പിന്നെ മര്യാദക്കും പിന്നെ ഒത്തിരി ചെളിയുള്ള സ്ഥലത്ത് കൊണ്ടു വന്നു പശുവിനെ കെട്ടാതിരിക്കുക അങ്ങനെ എല്ലാം നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും അകിട് രോഗം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാല് കെട്ടി നിൽക്കും പാൽ കെട്ടി നിന്ന് അകിടിൽ രോഗം വരും ആ അകിട് രോഗം വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടറെ വിളിച്ചു കൊണ്ടു വന്ന് അതിന് ഇഞ്ചക്ഷൻ എടുക്കുകയും ഡോക്ടർ പറയുന്നത് പ്രകാരം അയസ് പിടിക്കുകയും അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വേറെ ദൂഷ്യമൊന്നും ഉണ്ടാകാറില്ല പിന്നെ അകിട് രോഗം വന്നാൽ പാൽ നമ്മൾ സൊസൈറ്റി കൊടുക്കില്ല അത് നമ്മൾ പിഴിഞ്ഞു ദൂരെ കളയും അത് കഴിഞ്ഞു നല്ലത് പോലെ രണ്ട് മൂന്ന് നേരം ഐസ് പിടിക്കുകയും കറ്റാറ് വാഴപ്പോള എടുത്ത് അതിൻ്റെ അകിട് തേച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും അത് കുളമ്പ് അങ്ങനെയൊക്കെ നമ്മൾ സൂക്ഷിക്കുയാണെങ്കിലും നമുക്ക് ഒത്തിരി രോഗത്തിൽ നിന്ന് നമുക്ക് ആ പശുവിനെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ചു രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ കഴിയുന്നതും മറ്റുള്ള നേരം തണുത്ത സ്ഥലത്ത് കൊണ്ട് കെട്ടുകയോ മറ്റുള്ള രീതിയിലൊന്നും അങ്ങനെ അങ്ങനെ ഒന്നും ചെയ്യാതെ നമ്മള് സൂക്ഷിച്ചു അങ്ങനെയൊ ക്കെ ചെയ്യുന്നത് കൊണ്ട് പശുവിനെ നമ്മള് നല്ല നിലയിൽ നോക്കുന്നു അങ്ങനെയള്ള